ഹലോ നായിക്ക് ഹോട്ടലിന്റെ ഞാൻ ഊണ് അവിടെയുണ്ടോ ഒരു ഹോം സ്റ്റേയിൽ നിന്നാ

അഞ്ചാള്

ഇവിടേക്ക് എത്തിക്കാൻ പറ്റുമോ

ഇന്ന് എത്ര പേർക്ക് സദ്യ എത്രതരം കറികളുണ്ടാവും ആ പായസമോ ഒരു ഒരു പന്ത്രണ്ട് മണി ആവുമ്പോഴത്തേക്കൊക്കെ എത്തിക്കുമോ ഇന്ന് കുടിക്കാൻ ഒന്നും വേണ്ട അവിടുത്തെ സ്പെഷ്യൽസ് എന്തൊക്കെയാണ് ഓക്കേ ഊണ് മാത്രം മതി ആ ഡെലിവറി ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ